ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് പല അഭിപ്രായങ്ങളാണ് ഉള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയമെന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് അല്ല നൂറ്റി അമ്പത് വർഷത്തോളം പാരമ്പര്യമുണ്ട് കാരണം ബ്രിട്ടീഷ്കാരുടേതിൽ നിന്നും നമുക്ക് സാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ വളരെ അധികം കഷ്ടപ്പെട്ടു അതിന് ശേഷം നമ്മൾ ഇപ്പോൾ എഴുപത്തി അഞ്ച് വർഷമായിട്ടാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതുപോലെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണ്ട് തൊട്ടേ എല്ലാം ഇന്ത്യയിൽ ഉണ്ട് അതിൽ കോൺഗ്രസ്സാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ അല്ല സ്വാതന്ത്ര്യം നേടി തന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം അതുപോലെ എഴുപത്തി അഞ്ച് വർഷത്തോളം മുമ്പ് കോൺഗ്രസ് എന്നൊരു പാർട്ടി മാത്രമായിരുന്നു പിന്നെ മഹാത്മാഗാന്ധിയും നെഹ്റുവും ഒക്കെ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ്സിൻ്റെ ഒരു ഇതിലായിരുന്നു ഇന്ത്യയിലേക്ക് സാതന്ത്ര്യം കിട്ടിയതെന്നും അതിനെ പറ്റി ചില എന്താണ് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് മറ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരുന്ന സ്വാധീനത്തെ കുറിച്ചു അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇവിടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്നല്ല യൂറോപ്പിയൻസിനെ ഇവിടെ നിന്ന് കൊണ്ടു പോകാൻ അവരെ സഹായിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ കാണുമ്പോൾ ഇന്ത്യയിൽ പല ഒരുപാട് അതിന് ശേഷം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ വന്നു അതിൽ ഇപ്പം മതത്തിൻ്റെ മത ജാതി വർണ വിവേചനങ്ങളൊന്നും ഇല്ലാതെയാണ് ഇന്ത്യൻ ഭരണ ഘടന ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട് വിഭാവനം ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇവിടെ ഉരിതിരിഞ്ഞു വന്നിരിക്കുന്നതിൽ മത ജാതി വർഗ്ഗ രാഷ്ട്രീയങ്ങൾക്ക് മത ചിന്തകൾക്ക് അടിസ്ഥാനപരമായി അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും നിലവിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പം ഏതെങ്കിലു ഒരു വിഭാഗം ജാതിയുടെ അല്ലെങ്കിൽ ഒരു മതം അല്ലെങ്കിൽ ഒരു വർഗ്ഗം എന്നിവയിൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില പാർട്ടികളുടെ സ്വാധീനം ആ ഒരു വിഭാഗത്തെ മാത്രമായിരിക്കും കൂടുതൽ സ്വാധീനിക്കാൻ ശ്രമിക്കുക അതിൽ ചില ചില ചില ഒരു പാർട്ടികൾക്ക് മാത്രമാണ് പ്രമുഖരാരീയിലേക്ക് വരാനും ഭരണത്തിൽ കേന്ദ്രീകരിക്കാനും അല്ലെങ്കിൽ ഭരണ മായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നുള്ളതായിട്ട് അതിൽ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമുള്ള ഒരു കാര്യം എന്നു പറയുന്നത് നമ്മുടെ ഇവിടത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അതെല്ലാം തന്നെ പൊതുവായി കുറേ സമൂഹങ്ങൾക്ക് കുറേ ആളുകൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ച വയ്ക്കുന്നു എന്നു പറയാം പഷേ ചില ചെറിയ പാർട്ടികൾ ചെറിയ പാർട്ടികൾ മീൻസ് ഞാൻ മുമ്പ് പറഞ്ഞത് പോലെ ഈ ചില വർഗവർണ അങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് അവരെ ഏകീകരിച്ചു കൊണ്ട് നിൽക്കുന്ന പാർട്ടികൾക്ക് ഈ പറയുന്ന രീതിയിൽ പൊതുവായി ജനങ്ങളെ എങ്ങനെ സേവിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അതിൽ ഒരുപാട് ഉൽക്കണ്ഠയുണ്ട് അതിൽ തന്നെ ഇഷ്ടമില്ലാത്തതാണ് ഇപ്പം കേരള കോൺഗ്രസ്സെന്ന രീതി പറയുന്ന ഒരു പാർട്ടി കേരളത്തിലുള്ള കേരള കോൺഗ്രസ്സ് എന്നു പറയുന്ന പാർട്ടിയെ കുറിച്ചു അവർ പറയുന്നത് അവരുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സിൻ്റെ പാർട്ടിയുടെ അടിസ്ഥാന ഘടനയെന്ന് പറയുന്നത് അവർ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പാലയുമായി ബന്ധപ്പെട്ട് പണ്ട് ഈ കോൺഗ്രസ്സിൽ നിന്നും വിട്ടു പോയിട്ടുള്ള കുറച്ചു ക്രിസ്ത്യനുമായി ക്രിസ്ത്യനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു പാർട്ടി എന്നും പിന്നീട് അതിൽ തന്നെ കേരളത്തിലെ തന്നെ നായന്മാർ അതായത് മുതിർന്ന ഉയർന്ന വിഭാഗമെന്ന് മറ്റുള്ളവർ അല്ലെങ്കിൽ നായർ നമ്പൂരി അങ്ങനെയൊക്കെ പറയുന്ന നായന്മാരെന്ന് പറഞ്ഞ ഒരു വിഭാഗങ്ങൾ കൂടി ചേർന്നു കൊണ്ട് ഈ പാർട്ടിക്ക് കൂടുതൽ ബലം കൊടുക്കുകയും അങ്ങനെ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ഘടകമായി മാറുകയും രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന തലത്തിൽ ഇവിടെ എംഎൽഎമാരെ സൃഷ്ടിക്കാനും മറ്റും അവർക്ക് സാധിച്ചു അല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് നമ്മൾക്ക് അതായത് ഇവരുടെ പിന്നീടുള്ള നീക്കങ്ങളെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടുതൽ ഗുണയപരമായ രീതിയിൽ ഗുണപരമായ രീതിയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് ഇവരുടെ ചിന്തകളും ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രദേശത്തെ ഇപ്പം ഒരു പ്രദേശത്തിൽ റോഡ് വഴി വെള്ളം മണ്ണ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ ആളുകൾ എത്രയുണ്ട് അല്ലേ ഇവരുടെ എം എൽ എ ആണോ അവിടെ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇതിനകത്തെ ഒരു മെയിൻ ഒരു സംഭവം എന്നു പറയുന്നത് മെജോരിറ്റിയുള്ള ഇപ്പം കോൺഗ്രസ് കേരളത്തെ സംബന്ധിച്ചു കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം ഇങ്ങനെയുള്ള പാർട്ടികളായിരിക്കും ഒരു ഭരണത്തിൻ്റെ മുകളിൽ നിന്ന് ഭരിക്കാൻ ആയിട്ട് ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം വരിക ഭൂരിപക്ഷത്തിൽ വരിക ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആണെങ്കിൽ തന്നെ സിപിഎമ്മിന് ഭൂരിപക്ഷം ഉണ്ട് അതിൽ തന്നെ ഏട്ടു പത്തോളം ഘടക കക്ഷികൾ അവരെ നിയന്ത്രിക്കാൻ ഉണ്ട് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ഒരു പ്രത്യേക തീരുമാനെടുക്കാൻ പറ്റുന്നതെങ്കിലും ഈ ഘടക കക്ഷികളുടെ പുറകെ അതായത് അവരുടെ ഒരു ബാക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർ പറയുന്നത് കൂടി കേൾക്കാതെ ഒരു പ്രത്യേക തീരുമാനങ്ങളൊന്നും എടുക്കാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതൊക്കെ വച്ചു നോക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അതിപ്രസരം അത് നിയന്ത്രിക്കേണ്ട ഒരു ഘടകമായിട്ട് വേണം നമ്മൾ ഇപ്പം അതിനെ കുറിച്ചു തീരുമാനിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവെന്ന് പറയുന്നത് ഞാൻ ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളെന്ന രീതിയിൽ ഞാൻ ഈ ഒരു പതിനഞ്ച് വർഷത്തിന് ഇടയ്ക്ക് ഉള്ള ദേശീയ കേരളത്തിൽ നിന്നുള്ളതും ദേശീയ തലത്തിലുള്ളതുമായ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൻമാരേയും നേരിട്ടു കണ്ടിട്ടുള്ളതാണ് അതിൽ പരിചയപ്പെട്ടിട്ടുള്ളത് വളരെ കുറച്ചാണെങ്കിലും മറ്റു പലരുമായി നേരിട്ട് ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ എനിക്ക് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കാണൻ ആഗ്രഹം ആരെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് സ്റ്റാലിൻ സ്റ്റാലിനെ എനിക്ക് കാണാനും അദ്ദേഹവുമായിട്ട് ഒന്നു സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ഞാൻ അത് ഉപയോഗിക്കുമെന്ന് തോന്നുന്നു അതുപോലെ ഡി കെ ശിവ കുമാറും കർണാടകയിൽ നിന്നുള്ള ഉപപ്രധാനം ഉപ മുഖ്യമന്ത്രി അങ്ങനെ പലരെ പലരും എൻ്റെ ആ ഒരു ലിസ്റ്റിലുണ്ട് അവരോട് ചോദിക്കുക എന്നു വച്ചാൽ അവരോട് സാമൂഹ്യപരമായ കാര്യങ്ങളൊന്നും ആയിരിക്കില്ലെങ്കിലും എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാർട്ടിയെ ഈ സ്റ്റാലിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ പത്ത് വർഷത്തോളം ഭരണത്തിൽ ആയതിന് ശേഷം അതിന് ശേഷം അയാളുടെ ഒരു പ്രമുഖ അയാളുടെ ഒരു നേതൃത്വത്തിലാണ് അവിടെ ഇപ്പം സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതും അതും മൃഗിയ ഭൂരിഭഷത്തോടെയാണ് അയാൾ ഭരണ രംഗത്തേക്ക് കടന്നിരിക്കുന്നതും അതുപോലെ തന്നെ കർണാടകയിലാണെങ്കിലും അവിടെ ബിജെപിയുടെ ഒരുപാട് ഭരണ കളികൾക്ക് ഇടയിലാണ് ബികെ ശിവകുമാർ കോൺഗ്രസിനെ കഴിഞ്ഞ തവണ അവിടെ ബി ജെ പി ആയിരുന്നു ബികെ ശിവകുമാർ കോൺഗ്രസ്സിന് അധികാരത്തിൽ എത്തിക്കാൻ ശ്രമിക്കുകയും പിന്നെ സിദ്ധരാമയ്യുള്ള ഒരു പ്രശ്നത്തിലാണ് സിദ്ധരാമയ്യ അവിടെ മുഖ്യമന്ത്രിയായും ഇദ്ദേഹം ഉപ മുഖ്യമന്ത്രിയായിട്ടും തുടരുന്നത് ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ അവരോട് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഒന്നുമല്ലാതിരുന്ന പാർട്ടിയെ ഇത്രയും മെജോരിറ്റി ഭൂരിപ്ക്ഷത്തിൽ ഭരണത്തിലേക്ക് എത്താൻ അവരെക്കൊണ്ട് പ്രാപ്തമാക്കിയ കാര്യം എന്ന് ഞാൻ അവരോട് ചോദിക്കും പിന്നെ ഈ പല ടൈപ്പുള്ള ആൾക്കാരുകളെ എങ്ങനെ അവരെ ഓർത്തിരിക്കാൻ പറ്റും പല ഒരു നേതാവിനെ സംബന്ധിച്ചു മിനിമം ഒരു ദിവസം ഒരു പത്ത് അഞ്ഞൂറ് ആളുകളെ എങ്കിലും അവർ നേരിട്ട് കാണുകയും അവർ ഒരു മുന്നൂറ് പേരെ എങ്കിലും പേര് ചൊല്ലി പേര് എടുത്ത് വിളിക്കുകയും അവരുവായി സൗഹൃദം പുതുക്കിയും അതുപോലെ തന്നെ ഡെയിലി ഇങ്ങനെ ഈ സംഭവങ്ങൾ നടന്നു കൊണ്ടിരിക്കുമ്പോൾ അത് ഈ എങ്ങനെ ഇവർക്ക് അത് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നു പിന്നെ അവരുടെ ഭക്ഷണ ക്രമങ്ങളും യാത്രയിലുള്ള ക്സീണങ്ങൾ മറക്കുന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെയാണ് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത്